എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതൊരു ഐ ഫോൺ ആണ് അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ക്യാമറയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലിയ ക്ലിയറായിട്ട് നമ്മൾ ഏത് ഫോട്ടോ ആണോ എടുക്കുന്നത് അത് നമുക്ക് നേരിൽ കാണുന്നത് പോലെ തന്നെ നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട് ക്വാളിറ്റിയെന്ന് പറയുമ്പോൾ നൂറു ശതമാനം നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ നെഗറ്റീവ് വശമെന്ന് പറയുന്നത് അത് ഈ ഐ ഫോൺ ആയതു കൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഉപ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഐ ഫോൺ ഫോൺ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഐ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് അതിൻ്റെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു